ഇതല്ലേ ആപ്പീസ് പണിയുണ്ട് പഴയ വീടാണത് മുമ്പ് പൈപ്പും കാര്യങ്ങളൊക്കെ പഴയത് മാറ്റി ഇട്ടതേയുള്ളു ഇനി ടാങ്കൊക്കെ വെക്കണം വാഷ് ബേസ് ബാത്റൂമിലിട്ട് അപ്പുറത്ത് വെക്കണം മുഴുവനായിട്ട് ചെയ്യണം പഴയതിനൊക്കെ മാറ്റിയിട്ട് പുതിയതൊക്കെ വെക്കണം കുറച്ച് എന്തായാലും ഇത് മൂന്നാല് ദിവസം പണിയുണ്ടാകും

ടാങ്ക് അതിന് നമുക്ക് മേലെ വയ്ക്കാമല്ലൊ പറ്റില്ലേ ഇങ്ങനെ വയ്ക്കില്ല മൂവായിരത്തിൻ്റെ ആ ആയിരം മതി ആയിരം ആയിരത്തഞ്ഞൂറ് നോക്കാം അത് അപ്പം പറ്റിയ പോലെ ചെയ്യാം പിന്നെ ക്ളോസറ്റ് നമുക്ക് മാറ്റണം ക്ളോസറ്റ് മാറ്റണം പുതിയത് വയ്ക്കാം അത് നമുക്കത് ഇന്ത്യൻ ക്ലോസെറ്റ് മാറ്റിയിട്ട് യൂറോപ്യൻ ആക്കാം അപ്പോൾ ആതിലെന്തൊരമുണ്ട് ടാപ്പും ഈ ഷവറും പുറത്ത് പുറത്തെങ്ങനെ ഇരിക്കട്ടെ അത് കുഴപ്പമില്ല നമക്ക് ഷവറും വയ്ക്കണം പിന്നെയൊരു വാഷ് ബേസിൻ പോലെ ഫുള്ളി ഒന്ന് സെറ്റ് ചെയ്യണം

ഇങ്ക് ടൈപ്പില്ലേ ഇപ്പം പുതിയതും മോഡലുമൊക്കെ ഉണ്ടാകുമല്ലൊ നമുക്ക് കടയിൽ പോയി നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഒരു ദിവസം എന്തായാലും ഇറങ്ങാം പിന്നെ വീട് വെളിക്ക് വെളിയില് മൂന്നൊരു ടാപ്പും കൂടെ വരും വെക്കാം വെളിയിലെ ഒരു മൂന്ന് നാല് ടാപ്പ് എക്സ്ട്രാ അങ്ങോട്ട് വെക്കാം ആ നല്ലപോലെ വേണോ ആ ഇവിടെ കണക്ഷൻ ഉണ്ടല്ലൊ

ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങോട്ട് ചെയ്യാം അന്നായിക്കോട്ടെ അതാകുമ്പോൾ വിലയും കമ്മിയുണ്ടാകും ആ അത് ഫിക്സ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ആകുംട നിങ്ങളെന്തായാലും എപ്പളും പോയി എടുക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്കെന്തായാലും അറിയുന്ന പോലെയാണല്ലോ പോവാറ് കമ്മിയൊക്കെയാക്കുവല്ലോ റേറ്റിതൊക്കെയല്ലേ ആ അപ്പോൾ അതായാലും കുഴപ്പമില്ലല്ലൊ ഏകദേശം എത്ര ആകും നിങ്ങളെപ്പളും സൗകര്യം പോലെ ചെയ്യ് എന്തായാലും നിങ്ങളെല്ലാവിടെയും ചെയ്യുന്നത് അല്ലെ ചുവരിൻ്റെ സൈഡിൽ കൂടെയിട്ടാൽ പോട്ടുവൊന്നുവില്ലല്ലോ അല്ലേ ആ ഒരുദിവസം വേണേൽ ഒരാളെ നിങ്ങള് എക്സ്ട്രാ കൊണ്ടന്നോയ് അത് കുഴപ്പമൊന്നുമില്ല ആരെ നമുക്കെന്തായാലും സാധനം എടുക്കാൻ പോകണ്ടെ എന്തായാലും നാളെ നാളെയൊന്ന് നമുക്കൊന്നിറങ്ങാം ഓ ഓ വൈകിട്ട് വല്ലതും ഇതിലേ വന്നാൽ മതി ആ നമുക്കൊരു ദിവസം പോയിട്ട് സാധനം എടുത്തിട്ട് വന്നിട്ട് തുടങ്ങാമല്ലോ ആ നിങ്ങൾ ഈ സിമെന്റിന്റേം മണലിന്റേയും കാര്യം പറഞ്ഞാൽ ഞാനത് ഇവിടൊരാളുണ്ട് മൂപ്പരുടെ കൈയിൽ നിന്നറക്കാം എത്രയാണ് വരിക ശരി ഓക്കെ ശരി എന്നാൽ